ഗുഡ് മോർണിംഗ് കോച്ച് ആ അതെ അതെ അതെ കോച്ച് എൻ്റെ എനിക്ക് പതിനഞ്ച് വയസ് പതിനഞ്ച് അതെ ആ ആറ് മണിയാവുമ്പോൾ എത്തണം അല്ലേ ആ ആ ഇല്ല കോച്ച് അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും ഉപയോഗിക്കാറില്ല

ആ ആ ഓക്കെ കോച്ച് ആ ആ ആ ആ ആ ശരി കോച്ച് ആ ആ ആ ആ ആ ആ ആ ഇല്ല ഇല്ല കോച്ച് നല്ല പുതിയ ബൂട്ട് വാങ്ങി ഇട്ടിട്ട് വരാം കോച്ച് ആ ആ ആ ആ ആ പിന്നെ കോച്ച് രാവിലെ ആറ് മണി തൊട്ട് എത്ര മണി വരെയാണ് ട്രെയിനിംഗ് ഉണ്ടാവുക അല്ല കോച്ച് ഇപ്പോൾ രണ്ടു മാസത്തെ ലീവ് ആയതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ രണ്ടു മാസം കഴിഞ്ഞാൽ സ്കൂൾ തുറക്കുമല്ലോ അപ്പോൾ ഒരു എനിക്ക് ഒൻപത് മണിയാവുമ്പോൾ സ്കൂളിൽ പോകണം അപ്പോൾ ഒരു ഇവിടെ നിന്ന് എനിക്ക് ഒരു എട്ടേകാലിനൊക്കെ പോയാലാണ് പിന്നെ റെഡി ആയിട്ട് സ്കൂളിൽ പോകുവാനൊക്കെ പറ്റൂളളൂ അപ്പോൾ എങ്ങനെ ആവും ഒക്കെയും ആ അപ്പോൾ വൈകീട്ട് ആവുമ്പോൾ എത്ര ഞാൻ വൈകീട്ട് ഒരു നാല് മണിയാവുമ്പോൾ എത്തും അപ്പോൾ വൈകീട്ട് എത്ര മണി മുതൽ എത്ര മണിവരെയാണ് ആ ഏഴു മണിക്ക് പോകാമല്ലേ ആ ആ ആ ആ അപ്പോൾ സെലക്ഷൻ ഒക്കെ എങ്ങനെയാണ് കോച്ച് എപ്പോഴാണ് ഉണ്ടാവുക സെലക്ഷൻ ഉണ്ടാവും ആ ആ അല്ലേ അപ്പോൾ കോച്ച് നാളെ ആറു മണിക്ക് വരാമല്ലേ അല്ല അത് ഒന്നുകൂടെ കൺഫോം ആക്കിയതാണ് കോച്ച് ആ ആറു മണിക്ക് വന്നിട്ട് പിന്നെ നമുക്ക് ഈ വാമപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമല്ലേ ആ ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആ